ഹലോ അഖിലേഷിൻ്റെ അച്ഛനാണോ

അവൻ വീട്ടിൽ എങ്ങനെയാണ് ഹോം വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ ആ അപ്പോൾ അവൻ ഇവിടെ ഒന്നിനും താത്പര്യം കാണിക്കുന്നില്ല അപ്പോൾ എപ്പോഴും ഭയങ്കര ഇത് ക്ഷീണം പിടിച്ചത് പോലെ ഉണ്ട് അപ്പോൾ വീട്ടിൽ വേഗം ഉറങ്ങുന്നില്ലേ അതിനെ കുറിച്ച് ഓനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനാണ് ഞാൻ വിളിച്ചത് അപ്പോൾ എപ്പോഴും ഒരേ ക്ഷീണം പോലെ ഉണ്ട് അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടുണ്ടോ അല്ല കൊണ്ട് വരുന്ന ഭക്ഷണം കഴിക്കുന്നില്ല അവൻ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ നന്നായിരുന്നു അതെ അതെ ഒന്ന് ഒരു ഒന്ന് ഡോക്ടറെ ആ ആ ആ പിന്നേ ആ പറഞ്ഞോളു ആ പിന്നെ ഇവൻ ഉണ്ടല്ലോ ഇവിടെ കുറച്ച് വികൃതിയുണ്ട് അപ്പോൾ ഇന്നലെ ഒരു കുട്ടിയെ തല്ലിയിട്ട് കുറച്ച് ബ്ലഡ് വന്നു കുഴപ്പമില്ല അപ്പോ ഒന്ന് വീട്ടിലൊന്ന് പറഞ്ഞ് പറയണം അല്ല അവൻ ഭക്ഷണം കഴിക്കുന്നില്ല അതാണ് ആ ഒരു ക്ഷീണം അപ്പം പിന്നെ കുട്ടികളല്ലേ അത്കൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് ഇതല്ല ഞാൻ അധികം വിളിച്ചത് അവൻ ഇനി വീട്ടിൽ എങ്ങനെ എന്നറിയാൻ വേണ്ടിയിട്ട് ആപ്പ ആ ഒരു ആ അതായിരിക്കും അതായിരിക്കും അത് കൊണ്ട് ഇപ്പോൾ നാലാം ക്ളാസിലെ കുട്ടികളാകുമ്പോൾ അങ്ങനെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചിട്ട് അതുകൊണ്ട് അപ്പൊൾ അത് കംപ്ലൈൻറ്റായിട്ട് പറഞ്ഞതല്ല ഞാൻ കാര്യം നിങ്ങളെ അവതരിപ്പിച്ചത് മാത്രം അപ്പോൾ

അതെ അല്ലേ അല്ല ടിവി കണ്ടോട്ട് കുഴപ്പമില്ല ടിവിയിൽ ന്യൂസ് അതൊക്കെ ഉണ്ടല്ലോ കുഴപ്പമില്ല കണ്ടോട്ടെ ആ ഓ അത് ശരി ഓ ഹോ ആ ആ ആ ഓ അത് ശരി ആ അല്ല കുട്ടി അങ്ങനെ അടിച്ചേൽപ്പിക്കണ്ട അവനവൻ്റെ ഇഷ്ടത്തോടെ ചെയ്തോട്ടെ അപ്പോൾ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിലൊന്നു കാണിക്കണം അവനെ എന്തെങ്കിലു ടെസ്റ്റ് ആ ഓക്കെ ഓക്കെ അതെ അതെ ഇപ്പോഴും അത് തന്നെ ഒരു ക്ഷീണം ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആവനെ അങ്ങനെയാണ് വിളിച്ചത് ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ഉം ശരി